തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ജെല്ലിക്കെട്ട് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന സ്പോർട്സ് എന്നു പറഞ്ഞാൽ ഓട്ടം ചാട്ടം കബഡി അങ്ങനത്തെ ഇതാണ് എനിക്ക് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് കാണണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് വിനോദ സഞ്ചാരികൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പരമ്പരാഗതമായ ഗേമിലൊന്നാണ് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് അതുപോലെതന്നെ പഞ്ചാബിലെ പഞ്ചഗുസ്തി ഗുസ്തി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മഹാരാഷട്രയിലെ ലെംജിം ഒക്കെ എന്താ പറയുക കാണാൻ വിനോദയാത്ര സഞ്ചാരികൾക്കൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമുള്ളതാണ്